ഹലോ അബിഷേക് കോച്ചല്ലേ അബിഷേക് കോച്ചല്ലേ ആ അബിഷേക് കോച്ചല്ലേയെന്ന് ഞാൻ കോഡിനേട്ര് മിസ് ശിവാനന്ദൻ ആ സാറേ എടോ സാറേ സാറിന്ന് ഫുട്ബോളിൽ വന്നില്ലേ ഒരു ടീമിൽ ആ ഈവൻ്റ് കൊഡിനേറ്റർ ഞാനാണ് ആ അത് സാറിന് ഇന്നത്തെ മേച്ച് കഴിഞ്ഞുള്ള എക്സ്പീരിയൻസ് ഒന്നു പറയാമോ എന്തെങ്കിലും മാറ്റണോ എന്തെങ്കിലും ചെയ്യണോയെന്ന്

സാറിന് ഇന്നത്തെ മേച്ചിനോടെന്തെങ്കിലും എതിർപ്പോ എന്തെങ്കിലുമുണ്ടോ അങ്ങനെയെന്തെങ്കിലുമുണ്ടോ

ടറഫും ബോളുമൊക്കെ താങ്കൾക്ക് നല്ലൊരിതായിരുന്നോ വെൽക്കം ഡ്രിങ്കോ ഓ ആ സാറെ ഞാനത് പ്ലെയേഴ്സിന് കൊടുത്തതായിരുന്നു പിന്നെ സാറിന് കിട്ടാത്തതായിരിക്കും ആണോ സോറി സാർ സോറി സർ ആ സാറേ ആ പിന്നെ സാറെ സാറെ ഇപ്പോൾ ഞാൻ വിളിച്ചതേ അടുത്ത മാച്ചിലും ഒരു സാധ്യതയുണ്ട് കാരണം അടുത്ത മാച്ചിന് ഞാൻ ഞങ്ങൾ ഞാൻ ഞങ്ങൾ സാറിനെ ടീമിൻ്റെ പേരിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തോട്ടെ എന്താ സാറേ അല്ല സാറേ അത് അങ്ങനെ പറയല്ലേ ബാക്കി ബാക്കിയുള്ള ടീംസുമുണ്ട് സാറെ ആ അത് സാറിന് ഞാൻ സാറിന് ഒരു കോച്ചിംഗിൻ്റെ ആ ഒരു മിടുക്കാണ് സാറ് നന്നായിട്ട് കോച്ച് ചെയ്തു

ആ അത് ഓക്കെ ഓക്കെ സാറെ സാറുപോയി സാറടുത്ത മേച്ചെന്നു പറഞ്ഞിട്ട് ഞങ്ങൾ വെക്കുന്നത് എറണാകുളത്താണ് ഡേയ്റ്റ് ഫെബ്രുവരി ഒമ്പതായിരിക്കും സാർ ടൈമൊരു ഉച്ച കഴിഞ്ഞ് മൂന്നു മണി തൊട്ടിട്ട് ആറുമണി വരെ ഒറ്റ ഒറ്റ ഇതിലിങ്ങ് പോവാനായിട്ടാണ് സാറെ മൊത്തം സാറും കൂട്ടി പത്ത് ടീമ് ഞങ്ങൾ ഞങ്ങൾ ഇറക്കുന്നത് ഓൾ കേരളയാണ് എന്ത് സാറെ കേട്ടില്ല സാറേ ഇതിപ്പോൾ നമ്മൾ കഴിഞ്ഞ തവണത്തെപ്പോലെ ഈ ഫസ്റ്റ് അടിച്ചിരുക്കുന്ന ടീമിന് കഴിഞ്ഞ തവണ ഞങ്ങൾ കൊടുത്തത് അയ്യായിരത്തൊന്ന് അയ്യായിരത്തൊന്ന് രൂപയാണെങ്കിൽ ഇന്ന് കൊടുക്കുന്നതൊരു ഫിഫ്റ്റീൻ കെ അതേ റേഞ്ചിന് കാശിറക്കുന്നുണ്ട് കേട്ടോ കാരണം കൂടിയിട്ടുണ്ട് ആ ഓ ഓക്കെ സാർ ഞാൻ ഓക്കെ സാറെ ശരി സാറെ ഞാൻ വിളിക്കാവേ ഓക്കെ സാറെ